ഒരു വിധം എല്ലാ വീടുകളിലും ഇപ്പോൾ എൽ പി ജി സിലിണ്ടർ ലഭ്യമാണ് എല്ലാവരും കുറച്ചും കൂടി എൽ പി ജി സിലിണ്ടറിനെയാണ് ആശ്രയിക്കുന്നത് മറ്റു വിറകും മറ്റ് കാര്യങ്ങളും ഉപയോഗിച്ച് അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ് കാരണം സമയ ലാഭം മറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എൽ പി ജി സിലിണ്ടറാണ് കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് അങ്ങനെ എൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മുൻകരുതലുകൾ എടുക്കണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ആ സിലിണ്ടറിൽ ലീക്കേജ് ഉണ്ടോ അല്ലെങ്കിൽ ലീക്കാകുന്നുണ്ടോ നമ്മളൊന്നു നോക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടതാണ് പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം പാചകം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടോയെന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് അതുപോലെത്തന്നെ നമുക്ക് ഗ്യാസ് സിലിണ്ടറിൽ കുറച്ചും കൂടി ലീക്കേജും മറ്റും നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഗ്യാസ് റിപ്പയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് മുൻകരുതലുകളായിട്ട് നമുക്ക് എടുക്കേണ്ടത്